ഞങ്ങളുടെ പ്രദേശത്തെ ഏതെങ്കിലും ട്രാവൽ കമ്പനികൾ ട്രാവൽ ഏജൻറ്റുമാരെയൊന്നും എനിക്കറിയില്ല ആ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ കുറച്ച് ഗ്രാമപ്രദേശം ആയത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ എനിക്ക് നേരിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ള ട്രാവൽ ഏജൻസി സാൻറ്റമോണിക്കയാണ് ആ സാൻറ്റമോണിക്കയിവിടെ പുറത്ത് ഉണ്ട് അത് വളരെ അത്യാവശ്യം നല്ല സർവീസാണ് ആ നമ്മൾ അവരെ ഈ പുറത്തൊക്കെ പഠിപ്പിക്കാൻ കൊണ്ട് പോകാൻ അഡ്മിഷനൊക്കെ ചെയ്ത് തരാനൊക്കെ അവരെ അങ്ങനെ ആൾക്കാർക്ക് വിശ്വാസമുള്ള ഒരു സ്ഥലമാണ് അങ്ങനെ പുറത്ത് പഠിക്കണംന്ന് ആഗ്രഹമുള്ള ടൈമിൽ ഞാൻ തിരക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അവർ വിളിച്ച് നമ്മളോട് സംസാരിക്കും നമുക്ക് എങ്ങനെ പോകാൻ പറ്റും നമുക്കെത്ര ബാങ്ക് ബാലൻസ് വേണം നമുക്കെന്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണം നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമുക്കെങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടും നമ്മളെങ്ങനെയാണവിടെ പോയി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അങ്ങനെ ഒരുപാട് അസ്സിസ്റ്റൻസ് അവർ തരും അങ്ങനെ അത്യാവശ്യം നല്ല കമ്പനിയാണ് ആ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഏജൻസിയാണത് ആ അവരെല്ലാം രാജ്യത്തിലേക്കും പഠിക്കാനാഗ്രഹമുള്ള പിള്ളാരെ ഒക്കെ അഡ്മിഷൻ ശരിയാക്കി കൊടുക്കാറുണ്ട് പിന്നെ അവരുടെ സർവീസിനെപ്പറ്റി പറയാനാണെങ്കിൽ അവർ നമ്മുടെ ഈ തുടങ്ങുന്നെടം തൊട്ട് അവർ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരും നമ്മളവിടെ പോകുന്നതാണെങ്കിലും വിസാ അഡ്മിഷൻ നമ്മുടെ അക്കോമഡഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്ത് തരും ആ കുറച്ച് എല്ലാവർക്കും വിശ്വാസമുള്ളൊരു സ്ഥലമാണ് ആ പിന്നല്ലാതെ ഇവിടെ അടുത്ത് ട്രാവൽ ഏജൻസിയോ കമ്പനിയോ അങ്ങനെ വലിയ കമ്പനികളോ ഒന്നുമില്ല ചെറുതുമില്ല ഞാൻ കണ്ടിട്ടില്ല അതാണ് ട്രാവലേജൻസി അതാണെനിക്കറിയാവുന്നത്